അഞ്ചേരിയിലെ പ്രസിദ്ധമായൊരു ട്രാവൽ ഏജൻസിയാണ് അക്ബർ ട്രാവൽ ഏജൻസി കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ഹിമാലയ ട്രിപ്പ് പ്ലാൻ പോയിരുന്നു ആ ട്രാവൽ ഏജൻസിയുടെ കീഴില് ട്രാവൽ ഏജൻസി നല്ല ഞങ്ങൾക്ക് നമ്മളുടെ അപ്പോൾ കംഫർട്ടബിളായി തോന്നി അത്

ട്രെയിൻ സൗകര്യം ബസ് സൗകര്യം അവിടെ ലഭ്യമാണ് നമുക്ക് ഒരഞ്ച് എട്ട് മണിക്കൂറിൽ ഏകദേശം എട്ട് മണിക്കൂർ ട്രെയിനിൽ ഒരേ സമയം ട്രെയിലും ബസ്സിലും യാത്രയ്ക്കായിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു

ഡൽഹിയിൽ രാത്രി ഞങ്ങൾ പുറപ്പെട്ട് നല്ലത് രാവിലെ ഹരിദ്വാറിൽ എത്തി അവിടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് ബസ് കിട്ടി ഹിമാലയത്തിൽ പകല് മാത്രമേ വാഹനങ്ങൾക്ക് ഗതാഗതം അനുവദിക്കുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ യാത്ര വളരെ സുഖകരമായിരുന്നു അവിടെ അത് എൻജോയ് ചെയ്തു അവിടെ അവിടെ ഏജൻ്മാരൊക്കെ വളരെയധികം നല്ല സ്വഭാവമായിരുന്നു നല്ല ക്യാരക്റ്റർ ആണ് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെയധികം സുഖപ്രദമായ യാത്ര ആയിരുന്നു